വെള്ളം ആവശ്യമുള്ള വ്യത്യസ്ത ആവശ്യങ്ങളെന്ന് പറയുമ്പോൾ രാവിലെ എഴുന്നേറ്റപാട് നമ്മൾക്ക് ബ്രഷ് ചെയ്ത് വായ കഴുകാനും അതുപോലെ ബാത്ത് റൂമിൽ പോകാൻ പിന്നെ കുളിക്കാൻ പാത്രങ്ങള് കഴുകാൻ പിന്നെ ചായ വെക്കാൻ അതുപോലെ ഭക്ഷണസാധനങ്ങള് എന്തുണ്ടാക്കും എന്ത് വേവിക്കുമ്പോഴും നമ്മൾക്ക് വെള്ളം ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും ആവശ്യമാണ് അതുപോലെ തുടയ്ക്കാൻ നിലം നിലം തുടയ്ക്കാൻ പിന്നെ വസ്ത്രങ്ങൾ അലക്കാൻ ഇതിനൊക്കെ വേണ്ടിയിട്ട് വെള്ളം ആവശ്യമാണ് പിന്നെ എന്തിനും ഏതിനും എല്ലാ ഒരു ദിവസത്തിലെ രാവിലെ മുതൽ രാത്രി വരെയുള്ള എല്ലാ ആവശ്യങ്ങൾക്കും നമ്മൾ വെള്ളം ഉപയോഗിക്കും ആകെ വെള്ളം ഉപയോഗിക്കാത്തതെന്നു വച്ചാൽ അടിച്ച് വാരുമ്പം മാത്രമാണ് ബാക്കിയെല്ലാ എല്ലാ പണികൾക്കും വെള്ളം ആവശ്യമാണ് പിന്നെ ബാത്ത് റൂം കഴുകല് പിന്നെ അതുപോലെ ഇപ്പം നമ്മൾക്ക് ഒരുപാട് വസ്ത്രങ്ങൾ അലക്കാൻ ഉണ്ടെങ്കിൽ ഒരുപാട് വെള്ളത്തിന്റെ ആവശ്യമുണ്ട് അതുപോലെ പാത്രങ്ങള് രാവിലെയും ഉച്ചയ്ക്കും അത് നമ്മള് ഒരു ഗ്ലാസ്സില് വെള്ളം കുടിച്ചാൽ തന്നെ അതും കഴുകി വയ്ക്കണ്ടേ അതുപോലെ ഒരു ഗ്ലാസ് ചായ കുടിച്ചാൽ ആ ഗ്ലാസ് കഴുകി വയ്ക്കണ്ടേ അതിനൊക്കെ വെള്ളം ആവശ്യമാണ് എല്ലാ വെള്ളത്തിന്റെ ആവശ്യമില്ലാത്ത വെള്ളത്തിൽ വെള്ളമില്ലാത്ത ഒരാവശ്യവും നമുക്കൊരു ദിവസത്തില് നടക്കുന്നില്ല എല്ലാ രാവിലെ എഴുന്നേറ്റത് മുതല് രാത്രി കിടക്കുന്നത് വരെ വെള്ളത്തിന്റെ ആവശ്യം നിർബന്ധമാണ് എല്ലാ കാര്യങ്ങൾക്കും വെള്ളം വേണം